ഉത്സവങ്ങൾക്ക് പൊതുവേ പല സാധനങ്ങൾ ഉണ്ടാക്കലുണ്ട് ഈസ്റ്ററിനൊക്കെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും എല്ലും കപ്പ എന്ന് പറയും നല്ല എല്ലും കപ്പയൊക്കെ എല്ല് വേവിച്ച് കപ്പയൊക്കെ അതിലേക്ക് ചേർത്ത് അരപ്പൊക്കെ ഇട്ട് നാന്നായിട്ട് ഇളക്കി നന്നായി ചൂടാക്കിയൊക്കെ കഴിക്കുന്നതാണ് എല്ലും കപ്പയും നല്ല ടേസ്റ്റ് ആണ് പിന്നെ പെസഹ വ്യാഴാഴ്ച്ച ഉണ്ടാക്കുന്ന ഇഡിയപ്പം പാൽ അതൊക്കെ ഒരു എന്താണ് പറയുക ഒരൂ പ്രത്യേക സ്വാദാണ് നല്ല തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞുള്ള പാലും പിന്നെ ഒരു പ്രിത്യേക തരത്തിലുള്ള കുരിശൊക്കെ വച്ച ഒരു അപ്പമൊക്കെയാണ് പിന്നെ ഹിന്ദുക്കൾകൊക്കെ ആയാല് ഹിന്ദുക്കൾക്കെന്നല്ല പൊതുവേ ഓണത്തിനൊക്കെ എല്ലാ വീടുകളിൽ നിന്നും സാദ്യ ഉണ്ടാക്കും കുറേ കറികളൊക്കെ ആയിട്ട് നല്ല തൂശനിലയിൽ ചോറൊക്കെ ഇട്ട് കുറേ കറി സാമ്പാറും അവിയൽ പപ്പടം തോരൻ അച്ചാർ ചള്ളാസ്സ് അവിയൽ അങ്ങനെ അങ്ങനെ കറികളൊക്കെ വച്ച് കുറേ കറികളൊക്കെ ആയിട്ട് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കും പിന്നെ പയസം ഉണ്ടാക്കും ചില വീടുകളിൽ രണ്ടു മൂന്നും പായസം ഉണ്ടാവും പാലട പ്രഥമനും അരിപ്പായസവും പിന്നേ സേമിയപ്പായസം ചക്കപ്പായസം അങ്ങനെ പല പായസങ്ങളുണ്ട് അത്പോലെ തന്നെ വിഷുവിനും പായസവും സദ്യയുമൊക്കെ നമ്മൾ ഉണ്ടാക്കും അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ പിന്നെ ക്രിസ്തുമസ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കും പ്ലം കേക്കൊക്കെയാണ് സാധാരണ ഉണ്ടാക്കൽ ക്രിസ്മസെന്ന് പറയുമ്പം തന്നെ ഒരു കേക്കിൻ്റെ ഒരു ഒരു മയം ആയിരിക്കും എല്ലാവരും വരുമ്പോഴൊക്കെ കേക്ക് കൊണ്ട് വരും പിന്നെ ചിലവരൊക്കെ വീടുകളിൽ നിന്നുണ്ടാക്കും നല്ല ക്യാശു ഒക്കെയിട്ട് നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും അന്നും ഇതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും പിന്നെ മുസ്ലിംസിൻ്റെ പെരുന്നാളായാലും അവർക്ക് പ്രധാനമായിട്ടും ബിരിയാണി ആണല്ലോ അപ്പം അവരും ബിരിയാണി ഉണ്ടാക്കും പിന്നെ എല്ലാവരും അയൽ വീടുകളിലൊക്കെ കൊടുക്കും അങ്ങനെ എല്ലാ ഉത്സവങ്ങളിലും നമ്മൾ എന്താണ് പറയുക പല ഫുഡ്ഡുകളൊക്കെ ഉണ്ടാക്കും അപ്പോഴൊക്കെ നല്ല ഒരു രസമാണല്ലോ എല്ലാവരും കൂടെ കൂടി എല്ലാം കൂടി ഉണ്ടാക്കുമ്പൊഴൊക്കെ എന്താണ് പറയുക ഒരു നല്ല രസമാണ് എല്ലാവരും കഴിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമാകും നല്ല ഒരു സ്വാദും ആകും അപ്പം അങ്ങനെ ഒക്കെ പിന്നെ എന്താണ് ഉൽസവം എന്ന് പറഞ്ഞാൽ തന്നെ മെയിനായിട്ട് ഫുഡ്ഡ്കളാണല്ലോ പിന്നെ പെരുന്നാളിന് പോവുമ്പം ഐസ് ക്രീം കഴിക്കും പിന്നെ ചോളാ പൊരി കടല ഇതൊക്കെ നമ്മളെ മെയ്ൻ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കും പിന്നെ ഇതുപോലെ തന്നെ ക്രിസ്തുമസും ഈസ്റ്റർനൊക്കെ എല്ലും കപ്പയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും പിന്നെ ഈ ഓണം വിഷു തുടങ്ങിയവക്കൊക്കെ പായസവും കുറേ കറികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കും വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ ഉണ്ടാക്കും അതുപോലന്നെ പെസഹായ്ക്ക് പെസഹ അപ്പവും പിന്നെ പാലൊക്കെ ഉണ്ടാക്കും പിന്നെ ദുഃഖ വെള്ളിയാഴ്ച്ച നല്ല അടിപൊളി ചൂട് കഞ്ഞിയും പയർ ഉലത്തും നല്ല അച്ചാറൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കും അതൊക്കെ ഒരു എന്താണ് പറയുക ഒരു പ്രിത്യേക വർഷത്തിലൊന്നൊക്കെ ഒരു ഉള്ളൊരു സംഭവങ്ങളാണല്ലോ അതുപോലെ തന്നെ മുസ്ലിംസ്സിൻ്റെ പെരുന്നാളുകൾക്ക് ആയാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ അവരുടെ ഒരു ഓരോരോ എല്ലാവരുടേയും ഒരോരോ ആഘോഷണങ്ങളാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവർക്കും നല്ല ഒരു സന്തോഷമാണ് പിന്നെ എന്താണ് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നേ ആ പിന്നെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കും നല്ല അടിപൊളി തേങ്ങയൊക്കെ അരച്ച് അപ്പമൊക്കെ അരിയൊക്കെ അരച്ച് കുതിർത്തിയിട്ട് അരച്ച് പുളിപ്പിച്ച് നല്ല ശർക്കരയോ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല കിണ്ണത്തിലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി വട്ടയപ്പമാക്കും നല്ല സോഫ്റ്റ് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കും പെസഹ വ്യാഴാഴ്ച്ച ഇങ്ങനെ വട്ടയപ്പമുണ്ടാക്കും എന്നിട്ട് അതൊക്കെ മുറിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചക്ക കാലമായാൽ അടിപൊളി ചക്ക അപ്പം പൂച്ചയപ്പമൊക്കെ ഉണ്ടാക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇലയിൽ ചക്കയക്കെ ഇട്ട് അതിലേക്ക് അരിപ്പൊടിയൊക്കെ കുഴച്ച് നല്ല കുറച്ച് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി കുഴച്ചിട്ട് ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അതില് ഇടും എന്നിട്ട് നല്ല വേവിച്ച് ആവിയിൽ വച്ച് വേവിച്ച് പുഴുങ്ങി അങ്ങനെ പൂച്ചപ്പം ഉണ്ടാക്കും അതൊരു അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ എന്താണ് പിന്നെ ആ പിന്നെ അവിൽ വിളയിക്കും അവിലും തെങ്ങ ശർക്കരയൊക്കെ കൂടി ഇട്ടിട്ട് അവലിങ്ങനെ വിളയിച്ചെടുക്കും നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് പിന്നെ അതുപോലെ അവലോസുണ്ട അവലോസ്സ് പൊടിയുണ്ടാക്കും നല്ല കുറേ നേരം ഇങ്ങനെ അടുപ്പിലിട്ടിങ്ങനെ വറുത്ത് അരിയൊക്കെ വറുത്ത് അരിയും തേങ്ങയും ജീരകമൊക്കെ വറുത്ത് നന്നായിട്ട് വറുത്തിട്ടത് പൊതിച്ച് അവലോസുണ്ടാക്കും അതെലപ്പം കുറച്ച് കൂടി ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് അവലോസുണ്ട ഉണ്ടാക്കും പിന്നെ ചക്കക്കാലത്ത് മെയിനാണല്ലോ ചക്ക വറുത്തത് ചക്ക വെട്ടി അന്നെന്തായാലും ചക്ക വർത്തഉണ്ടാവും കൊറച്ചെങ്കിലുണ്ടാവും നാല് മണിക്ക് ചായ കുടിക്കുമ്പോമ്പൊഴക്കെ ഇച്ചിരി കഴിക്കാനായിട്ട് കൊറച്ച് ചക്ക വർത്തതൊക്കെ വറക്കും അടിപൊളി ഉപ്പൊക്കെയിട്ട് മഞ്ഞപ്പൊടിയൊക്കെയിട്ട് നല്ലടിപൊളിയായിട്ട് ചക്ക വറക്കും പിന്നേ പിന്നെ മാങ്ങാപ്പഴം വച്ചിട്ട് ഓരോ സാധനങ്ങളുണ്ടാക്കും ചക്ക പായസം ഉണ്ടാക്കും പിന്നെ മാങ്ങാപ്പഴം കൊണ്ട് മാങ്ങാ ജ്യൂസടിക്കും പിന്നെ എന്താണ് അങ്ങനെ പിന്നെ മാങ്ങാ നല്ല അടിപൊളിയായിട്ട് പച്ചയ്ക്ക് തിന്നും പിന്നെന്താണ് ചക്ക ചക്ക വേവിച്ച് കഴിക്കും ചക്ക പായസവും ഒക്കെ ഉണ്ടാക്കും പിന്നെ അ പ്രധാനമായിട്ടും ഈ വിഷുവിനും ഓണത്തിനുമൊക്കെ ഉള്ള സദ്യയിലൊക്കെ ആ പിന്നെ നെയ്യപ്പമുണ്ടാക്കും ഉണ്ണിയപ്പം തുടങ്ങി അപ്പങ്ങളൊക്കെ ഉണ്ടാക്കും അടിപൊളി പുളിപ്പിച്ചിട്ടിങ്ങനെ നാലു മണിക്കൊക്കെ ചായൻ്റെ കൂടതലൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം അതൊക്കെ ഉണ്ടാക്കുന്നവർ നല്ല രസമാണ് അതുപോലെ പഴ പോരീ സുഖിയൻ തുടങ്ങിയ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കും ഈ അവധിക്കാലത്തൊക്കെ അതൊക്കെ തന്നാരിക്കുവല്ലോ പണി അങ്ങനെ കുറേ സാധങ്ങളുണ്ടാക്കും പിന്നെ ഉൽസവങ്ങൾക്ക് ഒക്കെ എന്താണ് പറയുക പൊരികളും അല്ലാത്ത ഫുഡ്ഡുകളും മധുര പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കും പിന്നെ അങ്ങനെയൊക്കെ ഉത്സവങ്ങൾക്ക് എപ്പോഴും നല്ല അടിപൊളി ഫുഡ്ഡായിരിക്കും മെയിനായിട്ടും എല്ലാ ഉത്സവങ്ങൾക്ക് എന്തായാലും ഫുഡൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഒക്കെ